കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാഭ്യാസസമ്പ്രദായം എന്ന് പറയുന്നത് വളരെ നല്ലൊരു സമ്പ്രദായത്തിൽ കൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും അദ്ധ്യാപക ദൗർഭല്യം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അദ്ധ്യാപകരുടെ ഇടിച്ച് കയറ്റം എന്ന് തന്നെ വേണം പറയാൻ അദ്ധ്യാപകർ ആര് ഏത് ഫീൽഡിൽ നോക്കിയാലും അദ്ധ്യാപകരായിരുന്നു കൂടുതൽ അദ്ധ്യാപക പഠനം ചെയ്യുന്നവരായിരുന്നു കൂടുതൽ എ അതിന് ശേഷം പഠനശേഷം ക്വാളിറ്റി അതായത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ലാത്തവർ പോലും പണം കെട്ടി വെച്ചു കൊണ്ട് ഓരോ സ്കൂളുകളിൽ കയറി അദ്ധ്യാപകരായി ജോലി ചെയ്യുന്നു അദ്ധ്യാപകനാവാനുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ബിഎഡ് കോഴ്സ് അതായത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അത് ഒരദ്ധ്യാപകൻ ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം ഒരു കുട്ടിയോട് ഏത് രീതിയിൽ പെരുമാറണം ഒരു കുട്ടി എങ്ങനെ നിന്ന് കഴിഞ്ഞാലാണ് കുട്ടിയോട് എങ്ങനെ പെരുമാറിക്കഴിഞ്ഞാലാണ് കുട്ടി നന്നാവുക അല്ലെങ്കിൽ അറിവ് എങ്ങനെ എത്രത്തോളം ഏത് രീതിയിൽ കുട്ടിക്കെത്തിച്ച് കൊടുക്കണം എന്നൊക്കെ നല്ല രീതിയിൽ പഠിച്ച ഒരു അദ്ധ്യാപകന് മാത്രമേ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ തൻ്റെ രുചിക്കനുസരിച്ചിട്ട് അദ്ധ്യാപകരായി മാറിയവർ കേവലം വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളു ഇന്നത്തെ സമൂഹത്തിൽ മറ്റ് പലരും മറ്റ് പലരുടെയും പ്രകോപനത്തിന് ടീച്ചറായി മാറിയവരാണ് പ്രകോപനത്തിനോടൊപ്പം പണം പണം കെട്ടി വെച്ച് ഞാനൊരു അദ്ധ്യാപികയാണ് എനിക്ക് സമൂഹത്തിൽ ഒരു ജോലി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടീട്ട് അദ്ധ്യാപകരായവരും ഇന്നത്തെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസസമ്പ്രദായത്തിന് കുട്ടികൾക്ക് വേണ്ട അറിവുകൾ പകർന്ന് കൊടുക്കാൻ ടീച്ചേഴ്സിന് കഴിയുന്നില്ല കാരണം കുട്ടികളെ അവരുടെ ആ ഒരു അറിവുകൾ പകർന്ന് കൊടുക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആർജ്ജിച്ചെടുക്കേണ്ടതാണ് ആ ആർജ്ജനത്തോട് ആണ് നമ്മളൊരു കുട്ടിക്ക് ആ അറിവ് പകർന്ന് കൊടുക്കുന്നത് ആ പകർന്ന് കൊടുക്കുന്ന അറിവ് കുട്ടിയിലെത്തിയിട്ടുണ്ടോ കുട്ടിക്കതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ഒരു ടീച്ചറിൻ്റെ കടമയാണ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു അദ്ധ്യാപിക എന്ന് പറയുന്നത് കുട്ടികളെ നേർവഴിക്ക് കൊണ്ട് പോകാൻ കുട്ടികളുടെ ഗൈഡ് ആണ് അദ്ധ്യാപകൻ അദ്ധ്യാപിക എന്ന് പറയുന്നത് അവരെ ആസ്പദമാക്കീട്ടാണൊരു കുട്ടി വളർന്ന് വരുന്നത് ഞാൻ ഇന്ന ടീച്ചറെ കണ്ട് പഠിച്ചിട്ടാണ് വളർന്ന് വരുന്നത് എന്ന് പറയണമെങ്കിൽ ഒരു വിദ്യാർഥി അങ്ങനെ പറയണമെങ്കിൽ ഒരു അദ്ധ്യാപകനിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റീസ് അധ്യാപകനുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ പുതിയ അദ്ധ്യാപകരെ നിയമിക്കുക പുതിയ അദ്ധ്യാപകരെ നിയമിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ഒരദ്ധ്യാപകനാകാനും അതിനനുസരിച്ച് കുട്ടികളെ അതിലേക്ക് അതായത് വിദ്യാഭ്യാസത്തിലേക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസമെന്ന് പറയുന്നത് കേവലം ഒരു പഠിപ്പിക്കൽ മാത്രമല്ല മറ്റ് പൊതുവായ കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തിട്ടും പൊതുവായ പുറമെ ഉള്ള കാര്യങ്ങൾ എത്തിച്ച് കൊടുത്തിട്ടും എല്ലാ രീതിയിലും കലാപരമായിട്ടും കായികപരമായിട്ടും എല്ലാ രീതിയിലും കുട്ടിയെ വാർത്തെടുക്കുക എന്നതാണ് അധ്യാപകൻ്റെ ജോലി അതുകൊണ്ട് തന്നെ അതുപോലുള്ള ട്രൈൻഡ് ആയിട്ടുള്ള പരിശീലനം കൊടുത്തിട്ടുള്ള അതിനോട് ഇൻട്രസ്റ്റുള്ള ഒരു അദ്ധ്യാപകനെ ആണ് അല്ലെങ്കിൽ അദ്ധ്യാപികയെ ആണ് ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ അംഗീകാരം കിട്ടിട്ടുള്ള അദ്ധ്യാപകരേയും നിയമിക്കുക അതിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസസമ്പ്രദായത്തിന് വളരെ ഉന്നതി ലഭിക്കുന്നതായിരിക്കും